ഒരുപാട് പേരിൽനിന്നും നല്ല അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ട് ഏറ്റവും നല്ലപോലെ ചെയ്തിട്ടുള്ള ഒരു ഏറ്റവും നല്ലപോലെ ആണ് ചെയ്തിട്ടുള്ളത് അതിൽ ഒരുപാട് പേർ വന്ന് നല്ലനല്ല ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേർക്ക് കൈകൊണ്ട് തന്നെ നിർമ്മിച്ച വസ്ത്രം സമ്മാനമായി കൊടുത്തിട്ടും ഉണ്ട് ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഹാഡ്വർക്ക് ചെയ്താൽ അല്ലേ നമുക്ക് അതിനുള്ള പ്രതിഫലം കിട്ടത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് തിരിച്ചും അതുപോലെത്തന്നെ നല്ലനല്ല കാര്യങ്ങൾ കിട്ടും അതുപോലെത്തന്നെ ഉപഭോക്താക്കളിൽനിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് നമുക്ക് ചെയ്യാനും ഉള്ള ഒരു ഉറപ്പ് നമുക്ക് കിട്ടുന്നു പിന്നെ നല്ലനല്ല കാര്യങ്ങൾ നല്ലരീതിയിൽക്കൂടെത്തന്നെ ചെയ്യുക നല്ല ഉറച്ച വിശ്വാസത്തോടെ ചെയ്യുക എങ്കിൽ അല്ലേ നമുക്ക് നല്ല പ്രതിഫലം കിട്ടത്തുള്ളൂ ഒരുപാട് നല്ല നല്ല വസ്ത്രങ്ങൾ നല്ലനല്ല വസ്ത്രങ്ങൾ സമ്മാനമായി കൊടുത്തിട്ടുണ്ട് ഉപഭോക്താക്കളിൽനിന്നും നല്ല അഭിപ്രായങ്ങൾ ഒരുപാട് കിട്ടിയിട്ടും ഉണ്ട്